ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ശവസംസ്കാര ചടങ്ങാട് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാദ്യം ആ ആ നമ്മൾ അവിടെയുള്ള ബന്ധുക്കാർ അല്ലെങ്കിൽ അവർ അറിയുന്നവരൊക്കെ അവരെ പോയി കാണുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അവരുടെ കുടുംബാഗങ്ങളൊക്കെ സ്ഥലത്തില്ലെങ്കിൽ സ്ഥലത്ത് എത്തുകയും പിന്നെ എല്ലാവരും മരിച്ചിട്ട് രണ്ടാമത്തെ ദിവസമായിരിക്കാം ശവസംസ്കാരം ചെയ്യുക കാരണം അവരുടെ ബന്ധുക്കളൊക്കെ എത്താൻ ദൂരെ ഉള്ളവരൊക്കെ എത്തേണ്ട സാഹചര്യം സമയം ഒക്കെ അവർ കൊടുത്തിട്ട് അവരെ വന്നിട്ടാണ് ആ ശവശംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ അവർ കടക്കാറ് രണ്ടാമത്ത ദിവസമാണ് പ്രത്യേകിച്ചും പൊതുവേ നമ്മുടെ ശവസംസ്കാര ചടങ്ങുകൾ കാണാറ് ചിലരൊക്കെ മരിച്ച അന്ന് തന്നെ അടക്കാറ് സംസ്കരിക്കാറുണ്ട് എങ്കിൽക്കൂടിയും കൂടുതൽ പേരും രണ്ടാമത്ത ദിവസം വീട്ടുകാരൊക്കെ കാണുന്നതിന് വേണ്ടിയും ഒക്കെ ശവം അല്ലെങ്കിൽ ബോഡി പ്രദർശനത്തിന് വെക്കുന്ന ഒരു പതിവുണ്ട് എന്നിട്ട് രണ്ടാമത്ത ദിവസം ആണെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെയാണെങ്കിൽ പള്ളിയിൽനിന്ന് അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുക്കയും അടക്കുകയാണ് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പക്ഷേ ഹൈന്ദവരൊക്കെയാണെങ്കിൽ ദഹിപ്പിക്കുകയൊക്കെയാണ് ചെയ്യാറ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ ശവ സംസ്കാര ചടങ്ങുകൾ നടക്കാറുള്ളത്